ഇവിടെ പലതരം തൊഴിൽ വ്യവസായങ്ങൾ ഉണ്ട് അതായത് ആദ്യം പറയാനുള്ളത് കോഴിഫാം ആണ് കോഴി ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെല്ലാവരും കോഴി ഇറച്ചിയും പല ഇറച്ചിക്കളും കൂട്ടുന്നതാണ് കോഴിഫാമാണ് ഇവിടെ കൂടുതലായിട്ട് ഉള്ളത് പിന്നെ നമ്മൾ എന്താ പറയുക കോഴി അതായത് കോഴീനെ നോക്കുന്നത് കുറച്ച് പാടുള്ള പരിപാടിയാണെങ്കിലും നല്ല ലാഭവുള്ളൊരു ബിസിനസ്സ് ആയിട്ടാണ് കോഴി ഫാമ് കാരണം എന്തെന്ന് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാല്പത് രൂപ കിലോയ്ക്ക് ഉണ്ട് കോഴിയ്ക്ക് അപ്പോൾ ഒരു എന്താ പറയുക ചെറിയ ഒരു കോഴീനെ വാങ്ങി അതിനെ വളർത്തി അതിനെ വലുതാക്കി വിൽക്കുമ്പോൾ നല്ല ലാഭത്തിലാണ് വിൽക്കാറ് എൻ്റെ നാടിൻ്റെ കുറച്ച് ഇപ്പുറത്തുതന്നെ ഇഷ്ടം പോലെ കോഴിഫാമുകൾ ഉണ്ട് പിന്നെ പന്നി ഫാം ഉണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ട് ഇപ്പുറത്ത് പക്ഷെ അതിന് ഭയങ്കര സ്മെൽ ആയിരിക്കും കാരണം ഇത് വേസ്റ്റ് ആണല്ലോ തിന്നുന്നത് അപ്പോൾ വേസ്റ്റ് തിന്നുമ്പോൾ ഇതിന് ഭയങ്കര സ്മെൽ ആയിട്ടാണ് ഭയങ്കര സ്മെൽ ആണ് നമ്മുടെ റോഡിൻ്റെ അതിൽക്കൂടി ഒന്നും പോകുവാൻ പറ്റുകയേ ഇല്ല അത് പിന്നെ ഉണ്ട് അതായത് പന്നി ഫാം ഉണ്ട് പിന്നെ ഉള്ളതെന്നു പറഞ്ഞാൽ പശു ഫാമ് പശുഫാമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക മറ്റേ പാലിന് വേണ്ടിയിട്ടാണ് പശു പശുവിനെ കൂടുതലായിട്ടും വളർത്തുന്നത് നമ്മുടെ സൊസൈറ്റിയിലേക്ക് കൊടുക്കും ആ സൊസൈറ്റിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇന്ന് അതിൻ്റെ വാല്യു അനുസരിച്ച് നമ്മൾക്ക് ക്യാഷ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പശുവിനെ വളർത്തുന്നത് ഇങ്ങനത്തെ വ്യവസായങ്ങൾ നമ്മളെ നാട്ടിൽ സുപരിചിതമാണ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ നടത്തുന്നത് എല്ലാവരും ഇതുകൊണ്ടാണ് ജീവിക്കുന്നതും